ആ കൂടുതൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസങ്ങളുംകൂടി അതായത് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് നല്ലതാണ് അതാണ് എൻ്റെ ഒരു അഭിപ്രായം അതായത് ആശാരിപ്പണി പ്ലംബിംഗ് തുന്നൽ കോഴി മൃഗസംരക്ഷണം അങ്ങനത്തെയൊക്കെ സ്ക്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളിപ്പം അതായത് എന്തെങ്കിലും കുറച്ച് അതായത് ഇംഗ്ലീഷ് മലയാളം അങ്ങനത്തെ വിഷയങ്ങളൊക്കെ മാത്രം പഠിക്കാണ്ട് നമ്മുടെ പൊതുസമൂഹത്തിലേക്കും കൂടെ ഇറങ്ങി ചെന്നിട്ട് എല്ലാ ജോലികളും അറിഞ്ഞിരിക്കണം നമുക്ക് അത്യാവശ്യം അതായത് എല്ലാ ജോലികളും അറിഞ്ഞിരിക്കണം നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ചെയ്യണമെങ്കിൽ അതായത് പെട്ടെന്നിപ്പം നമ്മൾ വേറൊരാളെ വിളിക്കേണ്ടെ അപ്പം കുട്ടികളെ അതുംകൂടി കുട്ടികൾക്ക് പല അറിവുകളും കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെയാവുമ്പോൾ കുട്ടികൾ ഒന്നുകൂടെ അതായത് ഈ പഠനം മാത്രല്ലാണ്ട് കുട്ടികൾക്കൊരു രസവുമായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പം അതായത് വേറെ കാര്യങ്ങൾ അതായത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസങ്ങളൊക്കെ പഠിക്കുമ്പോൾ അവർക്കും ഒരു രസമായിരിക്കും ഇത് സ്ക്കൂളിൽ ഫുൾ അടച്ചിട്ടിട്ട് ക്ലാസ്സിലിരുന്ന് പഠിക്കും പഠിക്കുന്നതിൽ പഠിക്കുന്നതിൻ്റെ ഇടയിൽ അവർക്കൊരു അതായത് ഫ്രീ ടൈം പോലെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചെടുത്താൽ അവർക്ക് കുറച്ച് കുറച്ച് കാലം കഴിഞ്ഞാൽ അതൊരു ഉപകാരവും ആവും പിന്നെ പഠിക്കുമ്പം പഠിത്തത്തിൻ്റെകൂടെ പഠിക്കുമ്പോൾ അതൊരു രസവുമാണ്